നമ്മളോട് ഓരോരുത്തരോടും ഹോട്ടൽലെ ഭക്ഷ്ണമാണോ വീട്ടിലെ ഭക്ഷ്ണമാണോ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഒരു നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാർ പറയും വീട്ടിൽ അമ്മയുടെ ഭക്ഷണമാണ് ഇഷ്ടമെന്ന് ഗതികേട് കൊണ്ടോ അല്ലെങ്കിൽ അവസരങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടോ മാത്രമാണ് ഹോട്ടൽനെ ആശ്രയിക്കുന്നത് അതുകൊണ്ട് മാത്രമായിരിക്കും ഹോട്ടൽലെ ഫുഡ്ഡ് കഴിക്കുന്നത് ഒരിക്കലും സ്വന്തം അമ്മയുടെ ആ ടേസ്റ്റ് വിട്ട് പുറത്തൂന്ന് ആഹാരം കഴിക്കണമെന്ന് ഒരു മനുഷ്യനും ആഗ്രഹിക്കത്തില്ല അത് എവിടുള്ള ഏത് രാജ്യത്തുള്ള ആൾക്കാരായാലും സ്വന്തം വീട്ടിലെ ആഹാരം അത്രക്ക് ഇഷ്ടപ്പെട്ടോണ്ടായിരിക്കും കഴിക്കുന്നത് ഈ ഹോട്ടൽലേ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം രോഗങ്ങളാണ് ഓരോ ദിവസവും അനുഭവപ്പെടുന്നത് മനുഷ്യൻ്റെ ഹെൽത്ത് തന്നെ ഇല്ലാതാക്ന്നതീ ഹോട്ടൽലെ ഫുഡ്ഡ് കൊണ്ടാണ് അവരുടെ ആ വൃത്തിയില്ലായ്മയും അവർ അധികമായി ചേർക്കുന്ന കുറെ സാധനങ്ങളുടെയെല്ലാം എഫറ്റ് കൊണ്ട് മനുഷ്യർക്ക് എന്തെല്ലാം അസുഖങ്ങളാണ് ഉണ്ടാക്കുന്നത് വീട്ടിലെ ആഹാരം കഴിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖമുണ്ടാകുന്നത് അറിയുന്നുണ്ടോ ഒരിക്കലുമില്ല സ്വന്തം അമ്മയാണെങ്കിൽ ഉണ്ടാക്കുന്ന ആഹാരത്തിൽ നിന്ന് ഒരു മനുഷ്യർക്കും അല്ലെങ്കിൽ ഒരാൾക്കാർക്കും കേട് സംഭവികുന്നില്ല എന്നാൽ ഹോട്ടൽലെ അനുദിന ജീവിതത്തിൽ ഓരോ സാഹചര്യമനുസരിച്ചല്ലേ പുതിയ ഫുഡിൻ്റെ ടേസ്റ്റ് ഈ പുതിയ തലമുറക്ക് പുതിയ ടേസ്റ്റ്കൾ പരീക്ഷിക്കാൻ അല്ലേ ഇഷ്ടം അതെന്താണെന്ന് അറിയാനുള്ള ഒരാകാംഷയുടെ പുറത്തവർ ആ ഫുഡ്ഡക്കെ മേടിക്കുന്ന എന്നാൽ അതിൻ്റെ ഒരു പരിണിത ഫലം അവർ ചിന്തിക്കുന്നത് പോലുമില്ല പല പല ഫുഡ്ഡ്കളിൽ നിന്ന് പല ദിവസേന ഇത് കഴിക്കുന്നവർ ഒരു രോഗിയായി മാറുകയാണ് അത്പോലും അവർ മനസിലാകുന്നില്ല ദിവസേനെ ഇങ്ങനെ ഫുഡ്ഡ് പുറത്തൂന്ന് കഴിക്കുന്തോറും ഓരോ രോഗങ്ങൾ മനുഷ്യനെ കാർന്ന് തിന്ന് കൊണ്ടിരിക്കുകയാണ് എന്നാൽ വീട്ടിലെ ആഹാരം നമ്മുടെ അമ്മയുടെ കൈപ്പുണ്യമനുസരിച്ച് നല്ല ടേസ്റ്റൊത്ത് ആ ആഹാരം കഴിക്കുന്നത് കൊണ്ട് യാതൊരു വിധ കേടുപാട് സംഭവിക്കുന്നില്ല നൂറുശതമാനവാൾക്കാരും വീട്ടിലെ ആഹാരത്തെയാണ് ഇഷ്ടപ്പെടുന്നത് സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഹോട്ടൽനെ ആശ്രയിക്കുന്നത് ജോലി സ്ഥലത്ത് പോകുമ്പോൾ ഒറ്റക്കുള്ള താമസത്തിലോ അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടി പുറത്ത് പോകുന്നവരോ അങ്ങനുള്ളവരൊക്കെയാണ് മിക്കവാറും ഹോട്ടൽലെ ഫുഡ്ഡ് ആശ്രയിക്കുന്നത് അല്ലാതുള്ളവർ എല്ലാം തന്നെ അമ്മയുടെ അല്ലേൽ വീട്ടിലെ ആഹാരമാണ് ഇഷ്ടപ്പെടുന്നത് ഈ സാഹചര്യം ഇങ്ങനെ പുറത്ത് പോകുന്നവർ ഈ ഇതിൻറ്റേക്കെ പരണിതഫലമായിട്ട് ഹോട്ടൽനേ ആശ്രയിച്ച് ദിവസേനെ ഈ ഫാസ്റ്റ് ഫുഡ്ഡ്കളെല്ലാം കഴിച്ച് കഴിച്ചൊരു വലിയ രോഗി ആയിട്ട് മാറുന്നത് എനിക്ക് അറിയാം ഞങ്ങളുടെ വീടിൻ്റടുത്ത് തന്നൊരു സുമിത്ര ച്ചേച്ചി ഉണ്ട് ആ ചേച്ചിം പഠനത്തിൻ്റെ സമയത്ത് പുറത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് സിറ്റീലായിരുന്ന താമസം മിക്കവാറും ഹോട്ടൽലെ ഫുഡായിരുന്നു വെക്കാൻ വയ്യാന്ന മടികൊണ്ടായിരിക്കാം കാരണം ഹോട്ടലീന്ന് ഫുഡ്ഡ് കഴിച്ചിപ്പോൾ ഒരു രോഗി ആയിട്ട് മാറീരിക്കുകയാണ് അവരിപ്പം കരഞ്ഞു കൊണ്ട് എല്ലാരോടും പറയും ആരും ഹോട്ടൽലേ ഫുഡ്ഡ് മേടിച്ച് കഴിക്കരുത് അതേപോലെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളെപ്പോഴും ഇഷ്ടപ്പെടുന്നത് സ്വന്തം അമ്മയുടെ സ്നേഹമുള്ള ഫുഡ്ഡിനേയാണ്